ഞാൻ ഒഴിവ് സമയങ്ങളിൽ വിനോദത്തിനായി ടി വി ഓണാക്കും ടി വിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഈ നാടോടിപ്പാട്ട് അതിൻ്റെ വരികൾ ഓരോ വാക്കുകളും ഞാൻ ഉൾക്കൊള്ളും അതിൻ്റെ അർത്ഥം വരുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കും അതിനനുസരിച്ച് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വരികളും പാട്ടുകളുമാണ് നാടോടിപ്പാട്ടുകൾ അതിൻ്റെ വാക്കുകളും അതിൻ്റെ ആക്ഷനും അതിൻ്റെ ആ ചുവടുവെപ്പുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും ഹരമാർന്ന ഒരു രീതിയാണ് അതുപോലെത്തന്നെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്ന് വച്ചുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആണ് നൃത്തം അതെനിക്ക് ഇഷ്ട്ടള്ള ആണ് അതിന് നൃത്തത്തിന് ഉള്ളതായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നൃത്തം എവിടെയുണ്ടോ അവിടെ ഞാൻ ക്ഷേത്രം ആണെങ്കിലും കൊള്ളാം പള്ളി അങ്കണം ആണെങ്കിലും കൊള്ളാം അല്ലാതെ ഇപ്പം ക്ലബ്ബുകളിലാണെങ്കിലും കൊള്ളാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൃത്തത്തെ ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ളൊരു വ്യക്തിയാണ് അത് എവിടെയുണ്ടോ അതിന് അത് പോയി കാണും അതുപോലെത്തന്നെ നാടകം അതും അത് എവിടെയുണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ എനിക്ക് അത് കാണുക അതായത് സിനിമ കാണുന്നതിനെക്കാട്ടിയും ഇഷ്ടം ഉള്ളൊരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങളും വളരെ ഒരു മനസ്സിനൊരു ഉന്മേഷം ഒരു സന്തോഷം നൽകുന്ന ഒരു വിനോദമായിട്ട് നല്ലൊരു ഇതായിട്ടാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നതും കാണുന്നതും അതിന് അത് കാരണം കൊണ്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയിക്കാണുന്ന ഒരു വ്യക്തിയാണ്